ആ മറ്റു ചികിത്സയ്ക്ക് ഒരുപാട് ചികിത്സ ചെയ്യാൻ ഒരുപാട് മ മാർഗ്ഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ആയുർവേദമുണ്ട് സിദ്ധ അങ്ങനെ ഒരുപാട് ചികിത്സിക്കാനുള്ള പല സംവിധാനങ്ങളിപ്പോൾ നിലവിലുണ്ട് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയുമോ ഞാൻ ചെറുപ്പത്തിൽ ഹോമിയോ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോമിയോ മരുന്ന് എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ ഒരറിവിൽ ചെറുതായിട്ടുള്ള ആ ഒരു ചെറിയൊരു നമ്മളെ മിഠായി പോലൊരു ഒരു ചെറിയ വെള്ള കളറിലുള്ള ഗുളികയാണ് നല്ല കഴിക്കാൻ നല്ല രസമാണ് നല്ല മധുരമാകുന്ന രീതിയിൽ എനിക്ക് അപ്പോഴത്തെ ആ ഒരു അറിവ് മാത്രമേയുള്ളൂ പക്ഷേ എന്നാലും ചികിത്സ സംവിധാനങ്ങൾ ഇപ്പോൾ ആയുർവേദത്തിലായിക്കോട്ടെ സിദ്ധയിലായിക്കോട്ടെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ നമുക്ക് രോഗിയെ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആശുപത്രികളിൽ പോയിട്ടുള്ള ചികിത്സ മാത്രമല്ല ആയുർവേദത്തിൽ അല്ലെങ്കിൽ ഒരു ആയുർവേദത്തിലും ഒരുപാട് നൈപുണ്യം നേടിയവർ ഉണ്ട് അപ്പോൾ അങ്ങനെ ആ അവരുടെ കീഴിൽ നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് അതിൻറ്റേതായ മാറ്റങ്ങളും മറ്റ് പച്ചില കൂട്ടുകളും മറ്റും ഒക്കെ എന്താ പറയുക നമ്മൾ പ്രകൃതിയിൽ തന്നെയുള്ള ഓരോ എന്താ പ ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവരുടെ മരുന്ന് കൂട്ട് ഉണ്ടാവുക അപ്പോൾ അതിൻറ്റേതായ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇപ്പോൾ ശരീരം മുഴുവൻ എന്താ പറയുക ശരീരം മുഴുവൻ കാലും കൈയും അനങ്ങാത്ത ഒരു പല ആളുകൾക്കും ഇങ്ങനെ ആയുർവേദത്തിൽ ചികിത്സിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയുർവേദത്തിൽ ചികിത്സിക്കുന്നവരും ഒരുപാട് പേരുണ്ട് സിദ്ധ ഹോമിയോപ്പതി ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ ഒരോ ആൾക്കാരുടെ താത്പര്യം പോലെ ഉണ്ടാകും തീർച്ചയായും ആശുപത്രിയിലെ ചികിത്സ പോലെ തന്നെ തന്നെയാണ് ഇവയും നല്ല ചികിത്സ തന്നെയാണ്